ബൈക്കില് യാത്ര ചെയ്തുകൊണ്ട് ഉടനെ തന്നെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഊട്ടി അട്ടപ്പാടി വഴി ഊട്ടിയിലേക്ക് ഒരു പാതയുണ്ട് മണ്ണാര്ക്കാട് ചിന്നാത്താടാകം അന്തർ സംസ്ഥാന പാതായിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പാടിയിലെ കോട്ടത്തറ എന്ന സ്ഥലത്തുനിന്നും ഊട്ടിയിലേക്കു മുള്ളി വഴി നമുക്കു പ്രവേശിക്കാം വളരെ വീതി കുറഞ്ഞതും കാനന പാതയുമായ ഒരു വഴിയാണത് പോകുന്ന വഴിയില് ധാരാളം ആദിവാസി ഗ്രാമങ്ങൾ നമുക്കു കാണാൻ സാധിക്കും അവരുടേതായ കൃഷിരീതികളും കന്നുകാലി വളർത്തലും എല്ലാം നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് മുള്ളി എന്നത് കേരള തമിഴ്നാട് അതിര്ത്തി ഗ്രാമമാണ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ചെക്ക് പോസ്റ്റ് അവിടെ കാണാം അതും കടന്നു വേണം നമുക്കു സഞ്ചരിക്കാന് മുള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതും വലിയൊരു കാടാണ് അവിടെനിന്നാണു തുടക്കം അറുപതിലധികം ഹെയർ പിന്നുകളോടു കൂടിയ ഒരു ചുരമാണത് ഓരോ ഹെയർ പിൻ കഴിയുന്തോറും നമുക്കു നമ്മുടെ ശരീരത്തിൽ തണുപ്പിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും പോകുന്നവഴിക്കു പഴയ കാലത്ത് കനേഡിയൻ കമ്പനി നിർമ്മിച്ച ഒരു പവർ ഹൗസും ഡാമിനു സമീപമായി കാണാവുന്നതാണ് തുടർന്ന് മഞ്ചൂർ എന്ന പ്രദേശം എത്തുന്നു അവിടെ നമുക്കു ധാരാളം ചോക്ലേറ്റ് ഫാക്ടറികളും തേയില ഫാക്ടറികളെല്ലാം കാണാം പോകുന്ന വഴി നിറയെ തേയില തോട്ടങ്ങൾ കാണാവുന്നതാണ് ശൈത്യകാല വിളകളായ ഓറഞ്ച് സ്ട്രോബെറി തുടങ്ങിയവയുടെ കൃഷികളും ക്യാരറ്റ് മുള്ളങ്കി തുടങ്ങിയ പച്ചക്കറികളുടെ കൃഷികളും നമുക്കു കാണാൻ സാധിക്കും